വായന വളരെ താൽപ്പര്യമുള്ള സംഗതിയാണെങ്കിൽപ്പോലും ഈ പുസ്തകവായനയിൽ അങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല വായിക്കും പത്രങ്ങൾ വായിക്കും പത്രങ്ങൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു സ്വഭാവമാണെനിക്കുള്ളത് ഇവിടെ വളരെ പ്രശസ്തമായ മനോരമ പത്രമാണ് വീട്ടിൽ വരുത്തുന്നതും വായിക്കുന്നതും അതുപോലെ ദിന ദീപികയും മറ്റും പേപ്പറുകളുമൊക്കെ ഇടക്കാലങ്ങളിലൊക്കെ വായിക്കാൻ സാഹചര്യമൊത്തിട്ടുണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് താല്പര്യമാണ് പക്ഷേ പുസ്തകങ്ങൾ ഇതുപോലെ വായിച്ച് പൂർത്തി ആക്കാനൊക്കെ വളരെ അധികം സാധിക്കാത്തതുണ്ട് സാധിച്ചതുണ്ട് എങ്കിലും എന്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കിട്ടിയൊരു പുസ്തകം നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിലെ സ്വാതന്ത്രത്തെക്കുറിച്ചായിരുന്നു ജവഹർലാൽ നെഹറുവിന്റെ ജീവിതവും ചരിത്രമൊക്കെയുള്ള ഇന്ത്യയുടെ സ്വാതന്ത്രം എന്ന പുസ്തകത്തിൽ നിന്നാണ് ആ പുസ്തകമെന്നെ ഏറെ അധികം ചിന്തിപ്പിക്കുകയും എനിക്ക് അത് വായിക്കാനുള്ള പ്രചോദനം തരിക അതിലേറെ ചിന്തിപ്പിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കിത്തന്നിട്ടുണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്രം നേടിത്തന്ന പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ടിറ്റ് ജവഹർലാൽ നെഹറുവിന്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഞാൻ വായിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബവും പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയെ കുറിച്ചൊക്കെ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ആ വായനയിൽ എനിക്ക് പ്രചോദനമുണ്ടായി എങ്ങനെയാണ് രാഷ്ട്രം സ്വാതന്ത്രമായത് എന്നുള്ള അതിനകത്തെ മുഖ്യപങ്കാളിത്തം എല്ലാം ഞാൻ വായിച്ചു എനിക്ക് പ്രചോദനം കിട്ടിയതാണ് ഇത്രയേറെ കഷ്ടപ്പെട്ട നമ്മളിന്ന് ഉൾക്കൊള്ളുന്ന ഏതാണ്ട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുൾക്കൊള്ളുന്ന ഈ രാജ്യം ഭാരതം എങ്ങനെയാണ് ഈ ഭാരതം ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്ന് മോചിത ആയത് എന്നുളളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഞാനത് വളരെ വികാര വികാരാധീനനായിട്ടുണ്ട് എനിക്ക് ഭാഗങ്ങളൊക്കെ മനസ്സിൽ ഉൾക്കൊള്ളാനും അന്ന് നേതൃത്വം കൊടുത്ത ഭാരതത്തിന് സ്വാതന്ത്രം നേടിത്തരാൻ ത്യാഗം ത്യാഗം സഹിക്കേണ്ട രക്തസാക്ഷികളായിട്ടുള്ള മഹാന്മാരുടെ ചിത്രങ്ങളൊക്കെ ഇതിനകത്തുൾക്കൊള്ളിച്ച് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസിൽനിന്ന് മാറാത്ത ചില ആശയങ്ങളാണെനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഭാരതത്തിൽ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്രൂവിനേയും അദ്ദേഹത്തിന്റെ തലമുറകളേയും അന്നുണ്ടായിരുന്ന മഹാ ധീരന്മാരായ മഹാ പണ്ഡിറ്റ് മഹാത്മജി അതുപോലെ ജവാഹർലാൽ നെഹ്റു തുടങ്ങിട്ടുള്ള ധീരനേതാക്കന്മാരെയും അതിന് ശേഷമുണ്ടായ ജനാധിപത്യ സംവിധാനത്തിൽകൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു ഗവൺമെൻറ്റിനെ നയിച്ച കോൺഗ്രസ് സംസ്കാരത്തിലുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും വളരെ സ്വാഹനീയമായിട്ട് ഞാൻ കാണുകയും അവരുടെ ചിന്തകളും അവരുടെ രീതികളും അവരുടെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് വളരെ താൽപ്പര്യവും ശ്രദ്ധയുമുണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്നും നിലനിൽക്കുന്നത് ഭാരതത്തിന് സ്വാതന്ത്ര്യം തന്ന പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിയുറച്ച വിശ്വാസിയായിട്ടാണ് ഞാൻ നിലനിൽക്കുന്നത് കാരണം നമ്മുടെ രാജ്യം നമുക്ക് സ്വാതന്ത്രമാകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജന്മം കിട്ടുന്ന പോലെയാണ് നമുക്കൊരു ജന്മം തന്നത് പോലെ എനിക്കൊരു ജന്മം കിട്ടിയ പോലെ എനിക്ക് ജന്മം തന്ന എന്റെ പേരെൻസാണ് ഞാനെന്നും സ്തുതിക്കുകയും മഹത്തപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഭാരതത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്രരാക്കിയ നമുക്കെല്ലാവർക്കും ജീവശ്വാസം നമുക്ക് ഉച്വസിക്കുവാൻ സാധിച്ച സാധിച്ചത് ഈ കോൺഗ്രസെന്ന് പറയുന്ന ഒരു വലിയൊരു സമൂഹത്തിൽക്കൂടിയാണ് അത് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സെന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അങ്ങനെയാണ് ഇപ്പോൾ ഇന്നും എന്നും ആ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നത് അത് ഇടക്കാലഘട്ടങ്ങളിലൊക്കെ ശോഷിച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽപ്പോലും അടിസ്ഥാനപരമായി ഇന്നും ഈ ഭാരതത്തിൽ നിലനിൽക്കുന്ന ഏക പ്രസ്ഥാനം

ഞാൻ വായിച്ചിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ എന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്റെ പ്രവർത്തകരായിട്ടുള്ള എല്ലാ നേതാക്കളെയും അതിനേക്കാളുപരി ഈ ഭാരതത്തിന് ജന്മം നൽകിയ ധീര രക്തസാക്ഷികളും ധീര നേതാക്കൾ നേതൃത്വം വഹിച്ചിട്ടുള്ള എല്ലാ നേതാക്കളുടെ നേതാക്കളേയും ഈ ഇന്ത്യൻ നാഷണൽസ് കോൺഗ്രസ് എന്നുള്ള കുടക്കീഴിൽ ഞാൻ കാണുകയും ഞാനെന്നും അവരെ ആദരിക്കുകയും ചെയ്യുന്നു അത്രേം